നമ്മുടെ നാട്ടിന്പുറമായ കൈനകരി പ്രദേശത്ത് വാര്ത്താ മാധ്യമങ്ങളുടെ സ്വാധീനം ടൗണിനെ അപേക്ഷിച്ച് കുറവാണ് എങ്കിലും ദൃശ്യമാധ്യമമായ ലോക്കല് ടി വി കേ സി വി കുട്ടനാട് കേബിള് വിഷന് നല്ല രീതിയില് പ്രവേ പ്രവര്ത്തിച്ചുവരുന്നു ആയതിന്റെ വാര്ത്താ ലേഖകരും പ്രാദേശിക പരിപാടികളും ഒക്കെ ഉള്ളപ്പോള് നമ്മളാവശ്യപ്പെട്ടാല് വന്ന് വാര്ത്തകള് കളക്റ്റ് ചെയ്യുകയും വേണ്ട രീതിയില് പ്രാധാന്യം നല്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങള് കൂടാതെ പ്രിന്റഡ് മാധ്യമങ്ങളതായത് ന്യൂസ് പേപ്പര് മാസികകളങ്ങനൊള്ളവയ ഒരു നല്ല രീതിയില് ഇപ്പോഴും ഗ്രാമീണ മേഖലയായതിനാല് കൂടുതല് സ്വാധീനം ചെലുത്തുന്നുണ്ട് വായനയുടെ കാര്യത്തില് മറ്റു ടൗണിലുള്ള സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലയില് കൂടുതല് പേര് മാധ്യമങ്ങള് വായിക്കുന്ന രീതി തുടര്ന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ പത്രം മാസികകളെന്നിവയ്ക്ക് ആയതിനാല് പ്രാധാന്യം നല്കി തന്നെയാണ് ഈ മേഖലയില് പ്രവര്ത്തിച്ചു വരുന്നത് പ്രാദേശികമായ മാധ്യമങ്ങളുടെ ലേഖകരും ആയതിനു വേണ്ടി പ്രത്യേകിച്ച് കുട്ടനാട് എന്ന മേഖല പ്ര പ്രകൃതിദത്തമായി പിന്നോക്കം നില്ക്കുന്ന മേഖലയായാലും പ്രകൃതി ക്ഷോഭങ്ങളെ കൂടുതല് നേരിടുന്ന പ്രദേശമായതിനാലും വികസന കാര്യത്തില് പിന്നോക്കം നില്ക്കുന്ന മേഖലയായതിനാലും കൂട്തല് ശ്രദ്ധ ലഭിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പ്രാദേശിക മേഖലയ്ക്കുണ്ട് അതുപോലെ ദൃശ്യ ശ്രാവ്യ നവമാധ്യമങ്ങ രംഗത്ത് നമ്മുടെ പ്രദേശത്തുനിന്നും വളരെയേറെ പേര് അവരുടെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് പ്രൊഫഷണല് ചാനലുകളിലും ലോക്കല് ചാനലുകളിലും അതുപോലെ പത്ര മാധ്യമങ്ങളിലും എല്ലാം പ്രവര്ത്തിക്കുന്ന നമ്മടെ നാട്ടുകാരായ ആള്ക്കാരുണ്ട് സ്തുത്യര്ഹമായി പ്രവര്ത്തിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര നമ്മള്ക്ക് അതില് എടുത്തുപറയാന് സാധിക്കും അതിലേറ്റവും ആകര്ഷകമായി എനിക്ക് തോന്നിയത് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് റിപ്പോര്ട്ടര് ബിബിന് എം ദാസിനെ പറ്റിയാണ് ഓര്മ്മയില് വരുന്നത് വള്ളംകളി മുതല് പ്രകൃതി ക്ഷോഭം മുതല് വാര്ത്താ പ്രധാന്യമര്ഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കുട്ടനാട്ടില്ത്തന്നെ പഠിച്ച് നമ്മുടെ സ്ഥലവുമായി ഏറെ ബന്ധപ്പെട്ട് ഇഴുകിച്ചേര്ന്ന് എല്ലാ പ്രവര്ത്തനങ്ങളിലും മുന്നോക്കം നില്ക്കുകയും അവതരണ ശൈലിയില് എല്ലാവര്ക്കും ആകര്ഷകമായ രീതിയില് പ്രവര്ത്തിക്കുകയും ചെയ്യുന്ന എന്റെ സുഹൃത്തായ ബിബിന് എം ദാസിന്റെ ഓര്മ്മയാണ് പെട്ടെന്ന് മാധ്യമപ്രവര്ത്തകരെ കുറിച്ച് വരുമ്പോള് നമുക്കു മുന്നിട്ടു വരുന്നത് അതോടൊപ്പം തന്നെ നിരവധി മാധ്യമ പ്രവര്ത്തകര് നമ്മുടെ ഗ്രാമീണ മേഖലയില് പല രീതിയില് വാര്ത്ത വായിക്കുന്നവരും വാര്ത്താ ലേഖകരും അതോടൊപ്പം പ്രിന്റഡ് മാധ്യമങ്ങളില് പത്ര മാധ്യമങ്ങളില് പ്രവര്ത്തിക്കുന്നവരുമായ നിരവധി പേരുണ്ട് അവരെല്ലാം നമ്മുടെ പ്രദേശത്തിന് ഗുണകരമായ രീതീലുള്ള മാധ്യമ പ്രവര്ത്തനം നടത്തുകയും വേണ്ട കാര്യങ്ങളില് വേണ്ട രീതിയില് ഇടപെടുകയും ചെയ്തുവരുന്നു